ഞങ്ങൾ ആചരിക്കുന്ന അല്ല നമ്മുടെ ഈ ഹിന്ദു മതക്കാരുടെ ഒരു ആചരിക്കുന്നൊരു വള്ളിയൂർക്കാവ് മഹോത്സവം ഉണ്ടാവാറുണ്ട് ഇവിടെ അടുത്ത് വള്ളിയൂർ അമ്പലത്തിൽ വള്ളിയൂർ അമ്പലം എന്നാണ് അതിന് പറയുക അപ്പോൾ പിന്നെ ഒരു ദിവസം എന്നു വച്ചാൽ അതിൻ്റെ അത് തുടങ്ങുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പ് നമ്മുടെ വീട്ടു മുറ്റത്തിൻ്റെ മുറ്റത്തുകൂടി വാൾ കൊണ്ടുപോവും ഒരാൾ പിന്നെ ഒരു വാൾ ഈ അമ്പലത്തിലത്തെ സ്വർണ്ണ വാൾ എന്നു പറയും ആ വാൾ നല്ല പൊതിഞ്ഞിട്ട് മുന്നിൽക്കൂടി കൊണ്ടുപോവും അത് ആരും കാണാൻ പാടില്ല എന്നും ചിലർ പറയും പക്ഷെ എല്ലാവരും നോക്കിനിൽക്കാറുണ്ട് അത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതും നമ്മൾ നോക്കി നിൽക്കാറുണ്ട് അതുപോലെ മഹോത്സവം തുടങ്ങിയാൽ പിന്നെ നമ്മൾ കൂടുതൽ അവിടെപ്പോയി തൊഴുത് അമ്പലത്തിലൊക്കെ പോയി പിന്നെ വൈകുന്നേരങ്ങളിലെ പായസമൊക്കെ അവിടെ ഉണ്ടാവും അമ്പലത്തിൻ്റെ പിന്നെ ഹാളിൽ പായസമുണ്ടാവും അതുപോലെ ചോറൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്